ഗുഡ് മോർണിങ്ങ് മാഡം

അതെല്ലോ എന്താണ് മാഡം

എന്താണ് കംപ്ലെയിന്റ് എന്തെങ്കിലും ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ തണുപ്പാവുന്നില്ലെന്നല്ലേ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറെ അങ്ങോട്ടേക്ക് അയയ്ക്കാം എന്ത് അവർ ചെക്ക് ചെയ്തിട്ട് പറയും മാഡം എത്ര മാസം ആയി ഫ്രിഡ്ജ് മേടിച്ചിട്ട് ആറ് മാസമോ ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഫ്രി അ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പൈസ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മറ്റേ വാട്ട്സപ്പ് നമ്പർ എൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ ആധാറും ഒക്കെ ഒന്ന് അയയ്ക്കണേ ഡീറ്റെയിൽസ് മേടിച്ചതിൻ്റെ ഡീറ്റെയിൽസുകൾ ഒക്കെ ഒന്ന് അയച്ച് തരണേ ആധാറും ഉണ്ട് ഫ്രിഡ്ജ് മേടിച്ചതിൻറെ പൈസ പേ ചെയ്തിട്ടുണ്ടല്ലോ ആ ബിൽ സർവീസിന് ഞാൻ നാളെ വിട്ടേക്കാം എന്താണ് പ്രശ്നം എന്ന് ഞങ്ങൾ നോക്കട്ടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല ആറ് മാസത്തിൽ ഫ്രിഡ്ജ് ആയിട്ടുള്ളൂ ഫ്രിഡ്ജ് മേടിച്ചത് ആയിട്ടുള്ളൂ ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഫ്രീ സർവീസ് ആണ് ഓക്കെ ഓക്കെ വെൽക്കം മാം ഉം